നമസ്കാരം

എന്ത് ആ ടി വി ആണോ ഉദ്ദേശിക്കുന്നത് അതെ അപ്പോള് അതെ ഒരു കാർഡിന് മുന്നൂറ് രൂപയാണ് വരുന്നത് അതില് രണ്ട് തരം കിട്ടും ആ അതെ അതെ ആ അതെ അതിന് സ്പോർട്സിന് വേറെ സിനിമയ്ക്ക് വേറെ അതെ അതെ അങ്ങനെയാണ് മാസത്തിന് മന്ത്ലി എടുക്കും പിന്നെ വീക്കിലി ഇടയ്ക്കെടയ്ക്കുണ്ടാകും വീക്കിലിയുണ്ട് രണ്ട് വർഷം മൂന്ന് വർഷമുണ്ട് അതിന് ആയിരത്തി രണ്ടായിരത്തി സംതിങ് ഉണ്ട്

ആ വരും വരും നേരിട്ട് വരും ലൊക്കേഷൻ മലപ്പുറം

ഇല്ലില്ലില്ല

എന്നാല് ശരി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കില് വിളിക്കൂ താങ്ക് യൂ